ആ ചേച്ചി വാ വന്നാട്ടെ വന്നാട്ടെ ഫ്രൂട്ട്സുണ്ട് വിവിധ തരം ഫ്രൂട്ട്സുകളുണ്ട് ആ അതെ അതെ ഇവിടുത്തെ വെറൈറ്റി ആണ് ഞങ്ങൾ വരിക്കച്ചക്കയുണ്ട് നല്ല വരിക്കച്ചക്ക ഫുള്ളായിട്ടും കൊടുക്കുന്നുണ്ട് അത് മുറിച്ചും കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഇല്ല അല്ലേ ആ ഫുള്ളായിട്ട് നൂറ്റിയൻപത് രൂപയാണ് ഹാഫ് ആ അതെ അതെ അതെ ഹാഫ് എഴുപത്തിയഞ്ച് രൂപ നല്ല ഐറ്റം ചക്കയാണ് നല്ല മധുരമുള്ള ചക്കയാണ് ഇതെടുക്കട്ടെ ആ ഫുൾ ഇത് പാക്ക് ചെയ്യാം ആ നെല്ലിക്കയുണ്ട് നെല്ലിക്കയുണ്ടല്ലോ നെല്ലിക്കയുണ്ട് ആ പിന്നെ നാടൻ നെല്ലിക്കയാണ് ഇത് നാടൻ നെല്ലിക്കയാണ് ഇത് ഫാമിൽ വളർത്തുന്ന നെല്ലിക്കയല്ല ഇത് വളരെ ഗുണമുള്ളതാണ് ഇത് കൊണ്ടുപോയി നമ്മുടെ ഷുഗറിനൊക്കെ നല്ലതാണ് കേട്ടോ രണ്ട് മൂന്ന് നെല്ലിക്കയൊക്കെ ഡെയ്ലി കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് അച്ചാറിടാം അച്ചാറിടാൻ നല്ലതാണ് ഇത് ഇത് ഏറ്റവും നല്ലതാണ് അച്ചാറിടാൻ ഒരുപാട് കൈപ്പില്ലാത്ത ടൈപ്പാണ് നെല്ലിക്ക എത്ര എടുക്കണം നാല് കിലോ ആ നാല് കിലോ നെല്ലിക്ക പിന്നെ ഏത്തപ്പഴം ഏത്തപ്പഴം കിലോയ്ക്ക് അമ്പത് അവിടെ അപ്പുറത്തെ കടകളിലൊക്കെയാണെങ്കിൽ അറുപത് രൂപയാണ് നാടൻ ഏത്തയ്ക്ക നമ്മുടെ ഇവിടുത്തെ ആ അടുത്തുള്ള കർഷകർ കൊണ്ടുവരുന്നത് അല്ലെ നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് കഴിക്കാം ഞങ്ങളും ഇത് വീട്ടിൽക്കൊണ്ടുപോയി കഴിക്കുന്നതാണ് കുഞ്ഞുങ്ങൾകൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ഇവിടെ എല്ലാം ഒരുപാട് ഇതാണ്ട് ഹോസ്പിറ്റല് തൊട്ടടുത്തല്ലേ ആൾക്കാരെല്ലാം വന്ന് വാങ്ങിച്ച് കൊണ്ടുപോകുന്നുണ്ട് നമ്മളിവിടെ വിശ്വസിച്ച് വാങ്ങിക്കാം ആ ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾക്ക് ഇത് വിശ്വസിച്ച് വാങ്ങിക്കാം കുഞ്ഞുങ്ങക്ക് കൊടുക്കാം ഇത് നിങ്ങൾക്കും കഴിക്കാം പ്രായമായവർക്കും വേണമെങ്കിൽ കൊടുക്കാം ഒരു കുഴപ്പവും ഇല്ല നല്ല ഏത്തയ്ക്ക ഇത് എത്ര കിലോ എടുക്കണം ഇത് നാല് കിലോ എടുക്കട്ടേ

ആ ആ ആ ആ ഇത് പിന്നെ ഈ ഈ പൊടിയൊക്കെ അടിച്ചത് കൊണ്ടാണ് ഈ കളറ് പോയത് പോലെയൊക്കെ തോന്നുന്നത് നമ്മുടെ ഈ റോഡ് സൈഡ് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇത് ഏറ്റവും നല്ലതാണ് ഞങ്ങളിവിടെ നമ്മുടെ അടുത്തുള്ള കർഷകർ കൊണ്ടുവരുന്ന സാധനം അല്ലെ ഇത് ഞാനേ വീട്ടിൽ ഡെയ്ലി കൊണ്ടുപോയി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കാറുണ്ട് കഴിക്കാറും ഉണ്ട് വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് ആപ്പിൾ ഉണ്ട് ഓറഞ്ച് ഒക്കെ വിലക്കുറവാണ് എല്ലാം നമ്മൾ ഡിസ്ക്കൗണ്ട് പ്രൈസിലാണ് കൊടുക്കുന്നത് കാരണം നമ്മൾ വീണ്ടും വരണം ആൾക്കാർ വന്ന് വാങ്ങിക്കണം നിങ്ങളൊക്കെ വന്ന് വാങ്ങിക്കണം വീണ്ടും വന്ന് വാങ്ങിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് ഇത്രയും മതിയോ ആ ആ ആ ഇത് മൂന്നെണ്ണം പാക്ക് ചെയ്യട്ടെ ഓക്കെ ഓക്കെ ആ ബില്ല് ഇത് ഗൂഗിൾ പേ ചെയ്യും അല്ലെയോ ഇത് ഗൂഗിൾ പേ ചെയ്യും അല്ലെ ആ ആ വേണ്ട അത് ഗൂഗിൾ പേ ചെയ്തോ ഗൂഗിൾ പേ ചെയ്തോ വേണ്ട ഇല്ല ഈ എമൗണ്ട് ഗൂഗിൾ പേ ചെയ്തോ